ഹലോ ഹലോ ആ ഞാനേ സെൻറ്റ് മൈക്ക്ൾസ് സ്കൂളിലെ പി റ്റി ടീച്ചറാണ് ജയൻറ്റീച്ചറാണ് ആ ഞാനേ അഹ് ഇവിടെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കുറച്ച് യൂണിഫോം തയ്ക്കണമായിരുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ ആഹ് ചേച്ചിയാണല്ലോ യൂണിഫോം തയ്ച്ചത് അപ്പോൾ ആ യൂണിഫോം തയ്ക്കുന്ന കാര്യത്തെ കുറിച്ച് കുറച്ച് പിള്ളേരുടെ യൂണിഫോം തയ്ക്കാനായിട്ട് അതിൻ്റെ ഡീറ്റൈൽസും ഞങ്ങൾക്കെങ്ങനാണ് പെട്ടന്ന് തരാൻ പറ്റുവൊന്നൊക്കെ ഒന്നറിയാനായിട്ട് വിളിച്ചതാണ് അപ്പം ഒരു പത്തിരുന്നൂറ് ആ ആ അതെ മിക്സഡ് സ്കൂളാണ് അത് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നതാണ് ആ ആൺകുട്ടികൾക്ക് നമുക്ക് ഷർട്ടും പാൻറ്റുമാണ് തയ്ക്കേണ്ടത് അത് നമുക്ക് കൊച്ച് പിള്ളേർ ഒന്നാം ക്ളാസ് മുതലേ നമ്മളിപ്പോൾ പാൻറ്റാക്കി ഈ വർഷം മുതൽ അപ്പോൾ നമുക്കവർക്ക് പാൻറ്റ് തയ്ക്കണം പിന്നതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് നമ്മൾ ചുരിദാറാണ് അതിൻ്റെ പുറത്തൂടെ ഒരു കോട്ടും ഉണ്ട് നമുക്ക് പാൻറ്റ് ആൺപിള്ളേരുടെ പാൻറ്റും ഷർട്ടും അതിൻ്റെ പുറത്തൊരു കോട്ടൂടെ ഉണ്ട് അപ്പോൾ നമുക്കൊരു നൂറ്റൻപതോളം പിള്ളേരുണ്ട് നമുക്കിപ്പം തന്നിരിക്കുന്നത് ആ നൂറ്റൻപത് നൂറ്റൻപത് പിള്ളേരുണ്ട് തന്നിട്ടുണ്ട് ആ അപ്പോൾ അവർക്ക് അത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ പറയണം നമുക്ക് ഇത്രേം പേർക്ക് നമുക്കൊന്നിച്ച് തരുമ്പോഴേ അതൊന്ന് ആ ഡിസ്കൗണ്ടിട്ട് നമുക്കതെങ്ങനാന്ന് വെച്ചാൽ തരണം അതുമല്ല നമുക്ക് ആ രണ്ടും ഷർട്ടും പാൻറ്റും കൂടെ അതെ ഷർട്ടും പാൻറ്റും കൂടെ ആ നാനൂറ് രൂപ ആ പെൺകുട്ടികളുടെത് ആ പെൺകുട്ടികൾക്ക് അല്ലല്ല പാവാടേം ബ്ലൗസുമല്ല നമുക്ക് ഷർട്ടും ആ പാൻറ്റും ആൺകുട്ടികളുടെ മോഡല് പാൻറ്റ് അതിൻ്റെ പുറത്തൊരു കോട്ട് കോട്ട്മുണ്ട് ഇല്ലില്ല ചുരിദാറും കാര്യങ്ങളും ഒന്നുമില്ല അഞ്ഞൂറ് രൂപ ആ എന്നാലും ആഹ് അതവരൊന്ന് അതേ ഒരു വീട്ടീന്ന് ഇപ്പോൾ ചെറുക്കനും പെണ്ണിനും തയ്പ്പിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ ആ അത് ഞാൻ എണ്ണം തരുമ്പോൾ ഞാനേ എണ്ണം അത് എങ്ങനാണ് ഒരു വീട്ടീന്നുള്ളവർ തന്നെ ഞാൻ അങ്ങനെ തന്നെ തിരിച്ച് തരാം ഏ അവരുടെ ഏ ആ ആ ഞാനങ്ങനെ തിരിച്ച് തരാം അല്ല അപ്പം പിള്ളേരുടെ അളവെടുക്കാനെങ്ങനാണ് വരുവോ സ്കൂളിൽ വരുവോ അളവ് ഈ സ്കൂള് നമുക്ക് നമുക്കിനി സ്കൂള് തുറക്കാൻ മൂന്നാഴ്ച കൂടെ ഉള്ളു അപ്പം മാക്സിമം നമുക്കെത്രേം പെട്ടന്ന് നമുക്കൊന്ന് നേരത്തെ അതെന്നാന്നറിയാമോ ഈ കുഞ്ഞുങ്ങൾ പല സ്കൂളീന്നും വന്ന പുതിയ കുഞ്ഞുങ്ങളാ നമ്മുടെ സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ളാസിലും എട്ടാം ക്ളാസ്സിലൊക്കെ ചേരാൻ വന്ന പുതിയ കുഞ്ഞുങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊന്നും കുഴപ്പവില്ല അവരൊക്കെ തന്നെ തയ്പ്പിക്കും അപ്പം ഇവർക്കെന്ന് പറയുമ്പം നമ്മുടെ സ്കൂളിൽ തയ്യൽക്കാരുണ്ടോന്ന് ചോദിച്ചപ്പം നമ്മളുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് അവരെ മാക്സിമം നമ്മൾ യൂണിഫോ മൂന്നാഴ്ചത്തേക്ക് നമുക്ക് നീട്ടിക്കൊണ്ട് പോവാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം അതൊരു ഡേറ്റ് പറയാമെങ്കിലേ ആ ഞാൻ സമയം അവരോട് വിളിച്ചറിയിച്ചോളാം ആ പിള്ളാരോട് അപ്പോൾ അവർ പരെൻറ്റ്സ് പിള്ളേരായിട്ട് സ്കൂളിൽ വരും സ്കൂളിൽ വന്നാൽ മതി ഏ ആ യ്യോ ഒരു മാസമൊന്നും പറ്റില്ല മൂന്നാഴ്ച മിനിമം മൂന്നാഴ്ചയാണ് നമുക്ക് പിള്ളേരെ യൂണിഫോം ഇടാതെ പറ്റത്തില്ല ആ ആ ആ ഓക്കേ ആ എന്തായാലും മാക്സിമം കൊണ്ടുപോകരുത് ഒരു മാസമൊന്നും കൊണ്ടുപോകരുത് കേട്ടോ നമുക്കറിയാലോ ഈ പിള്ളേർ യൂണിഫോമില്ലാതെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ പോയാലെ കുട്ടികൾക്കെന്തെലും പറ്റി കഴിഞ്ഞാൽ അല്ല കൺസെഷൻ കൊടുക്കുന്നതല്ലെന്നേ കുഞ്ഞുങ്ങൾ ദൂരെന്നൊക്കെ വരുന്നതാണ് ബോട്ടു കയറിയൊക്കെ വരുന്നതാണ് അപ്പോൾ പിള്ളേർ യൂണിഫോമില്ലാതെ വല്ലോരും എങ്ങോട്ടെങ്കിലും പോയാലെ നമുക്കൊന്നറിയത്തില്ല ആ ആ ആ ഒരു ജോഡി തന്നാൽ മതി ഒരു ജോഡി തന്നാൽ മതി ആ അപ്പോൾ എങ്ങനാന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഇങ്ങു വാ കേട്ടോ ആ വാ വന്നേരെ ഓക്കേ ശരി എന്നാൽ